ആരോഗ്യ മേഖലയിൽ നോക്കി കഴിഞ്ഞാൽ കോട്ടയം വളരെ മുമ്പി മുമ്പിൽ മുമ്പിൽ തന്നെ ആന്ന് നമുക്കു പറയാം കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അതൊന്ന് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിഗണി സമ്പന്നരായ ഡോക്ടർമാരും എല്ലാം ചികിത്സിക്കുന്ന അവരെ പ്രവർത്തിച്ച് വരുന്ന അവരെ ചുറ്റി ചുറ്റി പറ്റി പ്രവർത്തിച്ചു വരുന്നൊരു വളരെ മികച്ചൊരു ഗവൺമെൻറ് ഒരു വളരെ ഒരു ഗവൺമെൻറ് നമുക്ക് വേണ്ടി സമർപ്പിച്ചൊരു കാര്യമാണെന്ന് തന്നെ നമുക്ക് വേണേ പറയാം അത് പോലൊരു മികച്ചൊരു ഇതാണ് അവിടുത്തെ സേവനങ്ങളും കാരണ കാര്യങ്ങളും ഏതൊരു സിറ്റുവേഷനിലും ഒരാളെ കൊണ്ട് വന്നാലും അവർക്ക് അവർ അവരതിനെ ആ അസുഖത്തെ പറ്റി പഠിച്ച് അതിനെ പറ്റി എല്ലാം അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ആ ഒരു നമ്മൾ കൊണ്ടു പോയ പേഷ്യന്റിനെ നല്ലൊരാളാക്കി തിരിച്ച് തരുന്നൊരു വളരെ മികച്ചൊരു സ്ഥാപനമാണ് നമ്മുടെ ഗവൺമെൻറ് കോട്ടയത്തെ മെഡിക്കൽ കോളേജ് അത് ഉള്ള മെഡിക്കൽ കോളജ് മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് വളരെ മികച്ചൊരു പ്രവണതയാണ് നമുക്ക് കാഴ്ച വെക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെ സേവനങ്ങളെലാം അതുപോലെയാണ് ഡോക്ടർമാരും വളരെ പരിചയ സമ്പന്നരായ ഡോക്ടർമാരാണ് അവിടെ പ്രവർത്തിക്കുന്നത് അതുമല്ല നമ്മളിപ്പോൾ എന്ത് ആവശ്യത്തിനാണെങ്കിലും ഒന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കി നമുക്ക് എല്ലാം ചെയ്തു തരുന്നൊരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടു വരുന്നത് അതുപോലെ തന്നെ കോവിഡ് സമയത്താണെങ്കിലും ഗവൺമെൻറ് ഒരു നമ്മുടെ മെഡിക്കൽ കോളേജ് വളരെ വളരെ വലിയൊരു പങ്ക് വഹിച്ചാണ് കോവിഡ് സമയത്ത് ആ മഹാമാരിയെ ചെറുത് നിൽക്കാനായിട്ട് കോട്ടയം ജില്ലയിൽ മാക്സിമം ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ പേര് കേട്ട ശസ്ത്രക്രിയകളൊക്കെ മിക്കതും നടന്നിട്ടുള്ളത് കോട്ടയത്തു വെച്ചാണ് കോട്ടയം മെഡിക്കൽ കോളജിൽ വെച്ചാണ് അതിനെ പറ്റി നമ്മുടെ മെഡിക്കൽ കോളേജിനെ പറ്റി പറയുമ്പോൾ വളരെ മികച്ചൊരു സംരംഭം ആണ് അത് അത് ഇപ്പോൾ നമുക്ക് ഒരിക്കലും താത്തി കെട്ടാൻ പറ്റാത്തൊരു എല്ലാ എല്ലാവരുടെയും മുന്നിലും നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുന്നൊരു ഇതാണ് നമ്മുടെ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് അത് കോട്ടയംകാരുടെ ഒരു രീതി കോട്ടയംകാർക്ക് വളരെ ഉപകാരപ്രദമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് കൊണ്ട് കാരണം എന്ത് വന്നാലും നമുക്ക് നേരെ അങ്ങോട്ട് ഓടി ചെല്ലാനും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ആശുപത്രി കോട്ടയത്തെ ജില്ലാ ആശുപത്രിയും അതുപോലെ തന്നെ അതിലും കുറച്ചു താഴ്ന്നു നിൽക്കുന്നതാണ് ജില്ലാ ആശുപത്രി ആ അത് അവിടെയും നമുക്ക് എല്ലാ സേവനങ്ങളും എല്ലാം നമുക്ക് അനുയോജ്യമായിട്ട് കിട്ടുന്നൊരു ആശുപത്രി ആണ് നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെല്ലാൻ പറ്റുന്നൊരു ആശുപത്രി ആണ് അത് കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും ഏത് സമയത്ത് ഏത് പാതിരാത്രി വേണമെങ്കിലും നമുക്ക് ധൈര്യത്തോടെ ഒരാളെ നമുക്ക് അവിടെ കൊണ്ട് പോയി നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അത് പോലെയുള്ള ഡോക്ടർമാരുടെ സേവനങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഇരുപത്തി നാലു മണിക്കൂറും അവിടെ ഉണ്ട് സജ്ജമാണ് അതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാറില്ല